ഹലോ എന്താണ് ആ ആ ആ അതിന് ഒന്ന് ആ മൂന്ന് സാധാരണ ഇതൊരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അത് അതിനകത്ത് സ്ഥലമാണിത് താഴെയും മുകളിലും എല്ലാ ഭാഗത്തും അപ്പോൾ അതിനകത്ത് തീരും അത് അത് അത് ഇതാണ് ആ വരുന്നതിന് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഏത് നു ആ അത് ചെയ്യാം നമുക്കത് ഇന്ന് പറയാം ഹാൾ ഹാളിന് എത്ര വലുപ്പം വേണ്ടി വരും ആ ഇപ്പോൾ ആ ഇപ്പോൾ എണ്ണഞ്ച് നാൽപ്പത് ആയിരത്തിന് അത് അഞ്ച് പത്ത് നൂറ്റമ്പതാവും ഇത് ഹാൾ ചെറുതായിരിക്കും അപ്പം നമുക്ക് ഒരാഴ്ച ആ രണ്ടാഴ്ച കൊണ്ട് അത് നമുക്ക് വാർത്തിടാൻ പറ്റും രണ്ടാഴ്ച കൊണ്ട് വാർക്കാം വാർത്തിട്ട് രണ്ടാഴ്ച ഇട്ടിട്ട് ഒരു ഒരു മാസം എടുക്കുമെന്ന് കൂട്ടിക്കോ അത് ഭിത്തി തേയ്ക്കുകയും വേണ്ടേ ആ അതിന് നാല് വാർപ്പിന് പതിനഞ്ച് ദിവസം വാർത്തിട്ട് ഇടേണ്ടേ വാർപ്പ് കഴിഞ്ഞ് പിന്നെ നനയ്ക്കാൻ അപ്പം പിന്നെ ബാക്കി തേയ്ക്കാനും ഇതും എല്ലാം കൂടി പത്ത് ദിവസം

അതെ ആ ഇപ്പം ഞാൻ അടുത്ത് ദിവസം വന്നേക്കാം ശരി